സ്കൂൾ കുട്ടികൾക്ക് വിനോദ യാത്ര കാണിക്കാൻ പറ്റിയ ഒരേയൊരു മ്യൂസിയം അല്ലെങ്കിൽ വളരെ മ്യൂസിയം മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കുന്നുള്ളൂ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്തുള്ളത് ഉള്ള മ്യൂസിയം മാത്രാണ് നമുക്ക് മ്യൂസിയ അല്ല നമുക്കതൊരു സൂവാണ് പിന്നെ മ്യൂസിയം എന്ന് പറയാൻ വേണ്ടിയാണ് നമുക്ക് മറ്റേ തൃപ്പൂണിത്തറയിൽ തൃപ്പൂണിത്തറയിൽ നമുക്കൊരു കോട്ടയുണ്ട് അതല്ലാതെയുള്ള മ്യൂസിയങ്ങളും ഉണ്ടോന്ന്ച്ച് നമുക്ക് വിനോദയാത്രയ്ക്ക് പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് ഇടുക്കിയിൽ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലങ്ങനെ മ്യൂസിയങ്ങൾ പോലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമുക്ക് ഹരിതയും പച്ചപ്പും എല്ലാം കൂടെ ചേർന്നൊരു കംപ്ലീറ്റ് സ്ഥലം തന്നെയുണ്ട് ഇതിനകത്ത് പിന്നെ അതല്ലാതെ നമുക്ക് കുറേക്കൂടെ മ്യൂസിയങ്ങളൊക്കെ ഉള്ളത് തിരുവനന്തപുരം എറണാകുളം പോലുള്ള ജില്ലകളിലാണ് അതൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് വിനോദയാത്രയ്ക്ക് കാണാൻ പറ്റിയൊരു അല്ലെങ്കിൽ കൊണ്ടുപോയി അവരെ കുറച്ചുകൂടെ അവരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയതും എല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മുടെ ചരിത്രവും നമ്മുടെ നമ്മുടെതന്നെ മഹാരാജ്യങ്ങളെ പറ്റി പറയാനും അവരുടെ ചിത്രങ്ങളും അവരുടെ ഉടവാളും അവരുടെ എന്തും നമുക്ക് അതിനേയൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ കൂടെ പറ്റിയതാണിത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രദേശത്തെ മ്യൂസിയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്